ഹലോ

ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ട് ഇന്ന് ഇപ്പോൾ മസാല ദോശ വ വസന്ത വിഹാർ മസാല ദോശ ഉണ്ട് അത് ഞങ്ങളുടെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് ഇന്ന് നിങ്ങൾക്കെന്താണ് വേണ്ടത്

ആ ഉണ്ടുണ്ട് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഞങ്ങൾ വീട്ടിൽ അത് എത്തിച്ച് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം അടുത്തെല്ലാമുള്ള സ്ഥലത്തേക്ക് ടൈം ഇപ്പോൾ നിങ്ങളുടെ ഓർഡറിന് അനുസരിച്ചായിരിക്കും ടൈം ഇപ്പോൾ നിങ്ങൾക്ക് എത്ര വേണ്ടതെന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മുടേത് ആ സ്ഥലമുണ്ട് ഉണ്ട് ഉണ്ട് പത്ത് ആൾ ആ ആണ് മസാല ദോശയിൽ ഒന്നിച്ചിപ്പോൾ സ്പെഷ്യൽ ആയിട്ട് ചട്നിയുണ്ട് പിന്നെ വട ഉണ്ട് ആ അപ്പോൾ ഒന്ന് സ്പെഷ്യൽ ആയിട്ട് അങ്ങനെയൊന്ന് ചെയ്യുന്നുണ്ട് ആ പിന്നെ ഇവിടെ എക്സ്ട്രാ ഉൾ ഉള്ളി തൈര് വടയുണ്ട് ഉള്ളി വട ഉണ്ട് ഇഡ്ഡലി സാമ്പാർ ഇഡ്ഡലി വട അപ്പോൾ ആ പറഞ്ഞ സമയത്തുതന്നെ എത്തിക്കും നിങ്ങൾ എത്ര എത്ര ആളെന്നുള്ള കണക്ക് നമുക്ക് ഇത് തന്നാൽ ഓർഡർ തന്നാൽ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് അടുത്തുള്ള എല്ലാ അൾക്കാരാണെങ്കിൽ വന്നിട്ട് കഴിക്കാനുള്ള സൗകര്യം എല്ലാം ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഇരിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട് ഉണ്ട് മസാല ദോശയ്ക്ക് മസാല ദോശയ്ക്ക് പിന്നെ അമ്പത് രൂപയാണ് ആ അമ്പത് രൂപ മസാല ദോശ ഉണ്ട് നെയ് റോസ്റ്റ് അതെല്ലാം ഇന്നത്തെ സ്പെഷ്യൽ ആണ് അതെ അതെ ഡെലിവറി എത്തിക്കും എത്തിക്കും ഞങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങളെത്തിക്കും ആ ആ എല്ലാം അറിഞ്ഞിട്ട് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ ഓക്കെ ഓ ഓക്കെ ഓക്കെ